ഫോട്ടോഗ്രഫി എന്നു പറയുന്നത് ഒരു വിനോദമോ അല്ല അല്ലെങ്കിൽ ഒരു തൊഴിലവസരമാണെന്നുള്ളത് ഞാൻ യോജിക്കുന്നു പക്ഷേ ഫോട്ടോഗ്രഫി എന്നു പറയുന്ന ഒരു വിനോദത്തിനോ അല്ലെങ്കിലൊരു തൊഴിലിനോ അപ്പുറം ആ കലയ്ക്ക് മേന്മയുണ്ട് അതൊരു കലയാണ് അതിപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരുടെയാകട്ടെ നമ്മുടെ വീട്ടുകാരുടെ ആകട്ടെ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു

എന്നാണ് എന്താണെന്നു പറഞ്ഞാലും ഫോട്ടോഗ്രാഫിയെന്നു പറയുന്നത് ഫോട്ടോഗ്രാഫി എന്നു പറയുന്നത് ഒരു വിനോദമോ അത് ഒരു തൊഴിലോവായി ഞാൻ അതിനെ വിലയിരുത്തുന്നു പക്ഷെ അതിലുപരി ഫോട്ടോഗ്രഫി എന്നു പറയുന്നത് ഒരു നമ്മുടെ ഓർമ്മകളുടെ ഒരു ഒരു ശേഖരണമാണ് കാരണം ഒരു ഫോട്ടോയിലൂടെ നമ്മൾ ശേഖരിച്ചുവെക്കും നമ്മുടെ ഒരു കാലം നമ്മുടെ ഒരു കാലമാണ് അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലങ്ങളെ നമ്മൾ ഓർക്കുന്നത് ഈ ഫോട്ടോയിലൂടെയാണ് നമുക്ക് ഓർമ്മകൾ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരവസരമാണ് ഫോട്ടോ എന്നു പറയുന്നത് ഫോട്ടോഗ്രാഫി ഒരു വിനോദമായി ചെയ്യുന്നവർക്ക് അത് ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു സന്തോഷം കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഒരു തൊഴിലായിട്ട് എടുക്കുന്നവർക്ക് അവർക്ക് കൂലി കിട്ടുമായിരിക്കും പക്ഷെ അങ്ങനെ ഉള്ളതിലുപരി അവരുടെ

ഈ ഒരു ചിത്രത്തിന് ഉള്ള ജീവൻ അത് വളരെ വലുതാണ് അപ്പം അത് കളയാതിരിക്കാൻ നമ്മൾ അതിൻ്റെ പരമാവധി ശ്രമിക്കുക ഒരു ജീവനുള്ള ചിത്രമാണ് നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ വരും കാലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ ഓർമ്മയായിട്ട് നിലകൊള്ളുന്ന ഒരു കാര്യം അതിലപ്പുറം ഈ ഫോട്ടോഗ്രാഫി ഒരു വിനോദത്തിലോ തൊഴിലിലോ ആവാനാണെങ്കിൽ അത് നമുക്ക് ഒരു സന്തോഷം നമുക്ക് തരുന്നില്ല പക്ഷെ ഒരു ഫോട്ടോഗ്രാഫി നമ്മൾ തൊഴിലായിട്ട് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ ഓർമ്മയെ നമ്മൾ ഒപ്പിയെടുത്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ വിനോദമായ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു നേർത്ത കാഴ്ച്ചയെ നമ്മൾ അങ്ങ് ഒപ്പിയെടുത്ത് കൊടുക്കുകയാണ് അപ്പം അതിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫോട്ടോയുടെ ലൈഫ് എന്നു പറയുമ്പോൾ വളരെ വലുതാണ് അതിലുപരി എൻ്റെ കൂട്ടുകാരും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അപ്പം അവരോടും എനിക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്നു പറയുന്നത് ഓരോ ഒപ്പിയെടുക്കുന്ന ഫോട്ടോയ്ക്ക് അതിൻ്റെതായ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുക